നമ്മുടെ നാടെന്നു പറയുന്നത് ഇപ്പം കോഴിക്കോടാണ് കോഴിക്കോടിൽ വെച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട് അത്യാവശ്യം പുരോഗമിച്ച ഒരു സ്ഥലമാണ് അവിടെയെന്നു പറയുമ്പോൾ ഈ ക്യാൻസർ ഹൃദ്രോഗങ്ങൾ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും തന്നെ അതിനു വേണ്ടതായ എന്താണ് എന്താണ് സൗകര്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്കെല്ലാം ഉള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പം പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് കീമോ പിന്നെ ഫിസിയോ തെറാപ്പി തുടങ്ങിയ ഡയാലിസിസ്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിൽ നം അവൈലബിളാണ് ഇപ്പോൾ ഇപ്പോൾ പൊതുവെയെന്നു പറയുമ്പോൾ ഇപ്പോൾ വയനാട്ടുകാരാണെങ്കിൽ അല്ലേ അല്ലേല് കണ്ണൂരുകാരാണെങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങനെ അത്യാവശ്യം ഇപ്പം നിലവിൽ ആധൂനികമായിട്ടുള്ള ആശുപത്രികൾ എത്തിയിട്ടില്ല അപ്പോൾ പുറത്തുള്ളവരെല്ലാം നമ്മളുടെ നാട്ടിൽ വന്നിട്ടാണ് ചികിത്സിക്കുന്നത് ഡയാലിസിസ്സ് കേന്ദ്രങ്ങളാണെങ്കിലും അല്ലേലിപ്പോൾ കീമോ തെറാപ്പി ചെയ്യുന്നവരാണെങ്കിലും ഇപ്പം നിറഞ്ഞു തന്നെ വരുകയാണ് ഫിസിയോ തെറാപ്പിസ്റ്റുകളാണെങ്കിലും ഇപ്പം പഠിച്ചിറങ്ങുന്നവരെല്ലാവരും അത്യാവശ്യം നല്ല സാലറിയുള്ള ഇതിൽ നോക്കിയിട്ടാണു കേറുക അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ ഓരോ വന്നാൽ അത് തടയാനായി അതിനൊരു അതിന് ഒരു ചികിത്സക്കായിട്ട് ഈ പറയുന്ന എല്ലാം നമ്മുടെ നാട്ടിൽ അവൈലബിളാണ് പിന്നെയെന്നു പറയുന്നത് അതിനുള്ള പൈസ അതിനു വരുന്ന പൈസയെന്നു പറയുന്നത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളാണെങ്കിൽ നമുക്ക് താങ്ങാവുന്ന പൈസയാണ് വരുക പക്ഷേ പുറത്തേക്കാണെങ്കിൽ നമുക്കത് ഒട്ടും താങ്ങാൻ കഴിയത്തില്ല കാരണം ഒന്നും രണ്ടും ദിവസം നിൽക്കുമ്പോൾ അല്ലേല് അത് ചെയ്യുമ്പോൾത്തന്നെ ഭയങ്കരായിട്ട് പൈസ കൂടുകയാണ് പിന്നെയിപ്പോൾ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് ആധാർ ഇൻഷുൻറൻസ് കാർഡുണ്ട് അപ്പോൾ ഇൻഷുറൻസ് കിട്ടുകയൊക്കെ ചെയ്യും ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രം നമുക്ക് എന്താണ് പ്രാ ഈ പറയുന്ന ഇൻഷുറൻസ് കാർഡ് അവൈലബിളായതു കൊണ്ട് നമുക്കവിടെ ചെയ്യുന്നതാണ് പിന്നെയെന്നു പറയുന്നത് ഇനി ഇപ്പം നമ്മുടെ ഇ ഇല്ലാത്ത നാടുകളിലേക്കു കൂടി ഈ പറഞ്ഞ അസുഖങ്ങളുള്ളവർക്ക് ചികിത്സയ്ക്കു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആധുനികായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ചെയ്യണം എന്നാലേ അവർക്ക് അവരുടെ ജീവിതം രക്ഷിക്കാനാവുകയുള്ളൂ